ആ അതേ പറയൂ ആരായിരുന്നു ആ കുറെ ആയോ തുടങ്ങിയിട്ട് ആ അപ്പോൾ കയ്യിലേക്ക് വേറെ പെയിൻ ഉണ്ടോ അല്ലാതെ കയ്യിലേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ നിങ്ങൾ ഇതിനു മുൻപ് ഇ സി ജി അങ്ങനെ എന്തെങ്കിലും എടുത്ത് നോക്കിയിട്ടുണ്ടോ ആ ഈ ഭാരമുള്ള പണികളൊക്കെ ആണോ എടുക്കുന്നത് ആ ടെൻഷനോ ടെൻഷനൊക്കെ ഉണ്ടോ ആ എത്രയും പെട്ടെന്ന് ക്ലിനിക്കിലേക്ക് വരേണ്ടിവരും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് ഇ സി ജി ഒക്കെ എടുത്ത് നോക്കീട്ടൊന്ന് പറയുക നെഞ്ചുവേദന ഉണ്ട് രണ്ടു ദിവസമായിട്ട് തുടങ്ങിയിട്ട് എന്നൊക്കെ പറയുക പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒക്കെ കയ്യുടെ ഒക്കെ വേദന ഉണ്ടെങ്കിൽ അറ്റാക്കിൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ ഹാർട്ടിനു എന്തെങ്കിലും പ്രോബ്ളം ഉണ്ടെങ്കിലോ എന്തെങ്കിലും അടവ് ഒക്കെ എന്താ പറയുക വാൽവൊക്കേ അടഞ്ഞയിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ മ് ഹാർട്ടിനു പ്രോബ്ളം ഉണ്ടെങ്കിലോ ആ

ആ അപ്പോൾ എന്തായാലും ഒന്ന് ഇ സി ജി എടുത്ത് നോക്കണം

ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് മൈനറായിട്ട് ചെയ്യാവുന്നേയുള്ളൂ ചിലപ്പോൾ അറ്റാക്ക് വന്നാൽ പോലും ചിലപ്പോൾ മനസിലാവില്ല ആ അതുകൊണ്ട് ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും

ആ ഓക്കെ